സാംസ്കാരിക സാമൂഹിക തലത്തിൽ വസ്ത്ര ധാരണത്തിന് മുൻതൂക്കം നല്കുന്നു കാരണം പല സംസ്ഥാനങ്ങളിലും വസ്ത്ര ധാരണം മോശപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ ഏത് കോലത്തിലും നടക്കാം എന്നുള്ള ഏത് വ്യക്തിക്കും ആകർഷിക്കുന്ന രീതിയിലാണ് എന്നാൽ കേരളീയരുടെ വസ്ത്ര ധാരണം സാരി പോലുള്ള അല്ലെങ്കിൽ ചുരിദാർ പോലുള്ള വസ്ത്രങ്ങൾ അവരുടെ ആന്തരിക അവയവങ്ങൾ മറച്ച് മറ്റുള്ളവർക്ക് പ്രചോദനം നൽകാതെ ആകർഷിക്കാത്ത രീതിയിൽ അതു വൃത്തിയായി കൊണ്ടുനടക്കാൻ വസ്ത്ര ധാരണത്തിന് സാധിക്കുന്നുണ്ട് ആഭരണങ്ങൾ ആണെങ്കിൽപ്പോലും അധികം ആഭരണങ്ങൾ ധരിക്കാതെ ആവിശ്യമുള്ള മിച്ചപ്പെട്ട അതായത് ശരിയായ കുറച്ച് രീതിയിൽ മാത്രം ആഭരണങ്ങൾ ധരിച്ച് വസ്ത്ര ധാരണയിൽ മുന്നോട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്